അപ്പം ഇന്ത്യയുടെ ഗതാഗത സംവിധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് എല്ലാ സ്ഥലത്തും ഒരു പോലെ അല്ല ഇപ്പം നമുക്ക് വേണങ്കി പറയാം ഇപ്പോ അതായത് ഒരുപാട് ഫണ്ട് കാര്യങ്ങളൊക്കെ ഗതാഗതത്തിന് വേണ്ടി അതായത് ഗതാഗതം മീൻസ് റോഡ് കാര്യങ്ങൾക്കോക്കെ ഗവണ്മെന്റ് പിന്നെ പൈസേക്കെ ഒരു പാട് മുടക്കുന്നുണ്ട് എങ്കിലും പക്ഷെ അത് മര്യാദക്ക് അതായത് റോഡ് പണിക്കാര് മര്യാദക്ക് ചെയ്യാത്തൊരഭാവത്തില് നമുക്ക് പല ആക്സിഡന്റിനും കാര്യങ്ങളും ഒരുപാട് മരണപ്പെട്ട അവസ്ഥയും കാര്യങ്ങലോക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പഴും ഇന്ത്യയില് ഒരുപാട് സ്ഥലത്തു കുഴികളും അതായത് വല്യ പുഴ പോലെ ഒക്കെ കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഒരു പാട് സ്ഥലത്ത് റെഡി ആക്കുന്നു ഉണ്ട് പിന്നെ ഇപ്പേന്ന് വെച്ചിട്ടുണ്ടെങ്കി നാല് വരി പാതേൻ്റെ ഒരു ഹൈവേ ആ ഒരു പ്രശനത്തില് ഒരു പാട് പേർക്ക് വീട് കാര്യങ്ങളൊന്നൂല്ലാണ്ട് ഒരു പാട് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ ഇണ്ടായിട്ടുണ്ട് അതൊക്കെ ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ് അപ്പന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവരുടെ ഓരോരുത്തരുടെ അതായത് അവര് അത്രേം സ്ഥലോടുക്കുമ്പോ ഓരോരുത്തരുടെ വീട് അതായത് ഇടിഞ്ഞ് പോകാറാവുക അങ്ങനത്തെ പല പ്രശ്നങ്ങളും അതൊക്കെ അതായത് സാധാരണക്കാർക്കൊക്കേന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു വീട് വേറെ കെട്ടുക വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരാവസ്ഥ തന്നെയാണ് അപ്പന്ന് വെച്ചിട്ടുണ്ടെങ്കി അതൊക്കെ വലിയയൊരു പ്രശ്നം തന്നെയാണ് ഇന്ത്യയിലിപ്പോൾ നടന്ന് കൊണ്ടിരിക്കുന്നത്